പലതരത്തിലുള്ള ഞങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും പിന്നെ ഈ വാക്സിനുകൾ പല രീതിയിലുണ്ട് കൊവാക്സിൻ ഉണ്ടായിരുന്നു കോവിഷീൽഡ് ഉണ്ടായിരുന്നു അങ്ങനെ വാക്സിനുകൾ എടുത്തിട്ടുണ്ട് എല്ലാ എല്ലാവരും എടുത്തിരുന്നു വാക്സിന് പിന്നെ പല പല കേന്ദ്രങ്ങളിലായിട്ട് ഞങ്ങൾ പല പല ഘട്ടങ്ങളിലായിട്ടാണ് വാക്സിനുകൾ എടുത്തിരുന്നത് അപ്പം തന്നെ ഒരുപാട് അത് ഈ വാക്സിൻ എടുത്തതിൻ്റേയും കൂടെത്തന്നെ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് ഉണ്ടായിട്ടുണ്ട് പലവർക്കും ഞങ്ങളുടെ ഈ ഗതി വച്ച് നോക്കുകയാണെങ്കിൽ പലവർക്കും വാക്സിൻ എടുത്തതിൽ ഒരുപാട് രോഗങ്ങൽ രോഗങ്ങൾ വാക്സിനിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും നിറയെ വാക്സിനെടുക്ക് വാക്സിനെടുക്ക് വാക്സിനെടുത്തില്ലെങ്കിൽ കുഴപ്പമാണ് അങ്ങെനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ വാക്സിനെടുത്തതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ മിക്ക ഉള്ള ആൾക്കാർക്കും എടുത്തിട്ടുണ്ട് വാക്സിനുകൾ പല രീതിയിലായിരുന്നല്ലോ കൊവിഷീൽഡ് അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പല പല ടൈമുകളിൽ പല പല ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും അന്ന് എടുത്തിരുന്നു പക്ഷേ അതിലൂടെ ഞങ്ങൾക്ക് വളരെയധികമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് കുടുംബത്തിലായിട്ട് ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള രോഗങ്ങളാണ് അത് എടുത്തതിന് മേലെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് അന്ന് എല്ലാവരും പറയും എടുക്ക് എടുക്കുയെന്ന് പറഞ്ഞ് പിന്നീട് ഞങ്ങൾക്ക് ഇപ്പം തോന്നുന്നു നമുക്കന്ന് ഓരോരുത്തറിൻ്റെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ വച്ച് നോക്കുമ്പോൾ എല്ലാവരും പറയും വാക്സിന് എടുത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയാറുണ്ട് എങ്കിലും തന്നെ ഞങ്ങളന്ന് എല്ലാവരും അത് എടുത്തിരുന്നു ഓരോ വാക്സിനുകളും എല്ലാവരും എടുത്തിരുന്നു